ബൈക്ക് യാത്രകൾ വളരെ ആനന്ദകരമാണ് ഏതൊരു യാത്രക്കാരനും ആഗ്രഹിക്കുന്നതു തൻ്റെ കൂടെ മറ്റു യാത്രയ്ക്കു കൂട്ടിനാളുണ്ടാവണമെന്നുള്ളതാണ് ഇതിനൊരുപാടു കാരണങ്ങളുണ്ട് ഒന്ന് മാനസികമായിട്ടുള്ള ഒരു ബന്ധവും അതുപോലെ തന്നെ ഒരു സുരക്ഷാ കവചവുമായിട്ട് ഇതു മാറാറുണ്ട് മറ്റൊരു പ്രധാനമായിട്ടുള്ള കാര്യം ഇതു യാത്രയിലങ്ങോളം ഒരു ആസ്വാദ്യകരമായിട്ടുള്ള കാര്യമായിട്ടു മാറാറുണ്ട് ഇനി ഏറ്റവും നല്ല വഴികൾ ഇവര് റൈഡർമാരെ കണ്ടെത്താനുള്ളത് എന്നുള്ളത് ഒന്ന്

ഓൾ ഇന്ത്യ അല്ലെങ്കില് ഓൾ കേരള റൈഡേഴ്സ് അസോസിയേഷൻ എന്നിവ നിലവിലുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനത്തെ അസോസിയേഷൻ ഉണ്ടെങ്കിൽ അതുമായിട്ട് കോൺടാക്ട് ചെയ്തു ബന്ധപ്പെട്ടു തങ്ങളുടെ റൈഡർ പാര്ട്ണറെ അവര് ഉറപ്പാക്കുക എന്നുള്ളതു മറ്റൊരു കാര്യമാണ് ഒറ്റയ്ക്ക് എനിക്ക് ഒറ്റയ്ക്കോട്ടുന്നതിനേക്കാള് ഇഷ്ടം മറ്റുള്ളവരോടു കൂടി ഓട്ടുന്നതാണ് എന്നുള്ളത് അതിനു കാരണം മറ്റുള്ളവരുള്ളപ്പോള് നമുക്കൊരു സുരക്ഷാ കവചവും നമുക്കു നമ്മുടെ യാത്ര ഒരു ആനന്ദകരവും അതുപോലെ തന്നെ സങ്കുചിതങ്ങൾ നിന്ന് മുക്തമായിട്ടുള്ള ഒന്നുമായിട്ട് അതു മാറും എന്നുള്ളതുകൊണ്ടാണ് ഞാനതിന് ഇഷ്ടപ്പെടുന്നത് യാത്രകൾ വളരെ സുന്ദരമാകട്ടെ വളരെ വലിയ ആസ്വാദനങ്ങളാവട്ടെ എന്ന് എന്നും പ്രത്യാശിക്കുന്നവരാണു നമ്മൾ